എൻ്റെ ഗ്രാമത്തില് പ്രധാനമായും കണ്ടുവരുന്ന വ്യവസായങ്ങളിൽ ഒന്നാണ് പലചരക്ക് ഉൽപ്പനങ്ങളുടെ കട എന്ന് പറയുന്നത് അതായത് പച്ചകറികളും പഴങ്ങളും പലവ്യഞ്ജനങ്ങളും എല്ലാം വിൽക്കാനും വാങ്ങാനുമുള്ള അതിൻ്റെയൊരു വ്യവസായം അതായത് കടകളുണ്ട് അതുമാതിരിതന്നെ ഉള്ള ഞാൻ കണ്ടുവരുന്ന മറ്റ് മറ്റ് വ്യവസായങ്ങളാണ് ഡെയറി ഫാംമ് അതായത് കന്നുകാലി വളർത്തല് അവയിൽ അതിൻ്റെ അതിൻ്റെ പ്രൊഡക്ടുകളായ പാല് പാൽ ഉൽപ്പനങ്ങള് പിന്നെ അതിൻ്റെ തന്നെ ചാണകം കൊണ്ട് വളം ഉണ്ടാക്കി വിൽക്കുക അതിനോട് അനുബന്ധിച്ചുള്ള വ്യവസായങ്ങളും ഇവിടെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് അതുമാതിരി തന്നെ മില്ലുകള് ഇവിടെ കൂടുതലാണ് അതായത് ഇപ്പോൾ ഓയിൽ മില്ല് വെള്ളിച്ചെണ്ണ മറ്റ് പോ അതായത് നമ്മുടെ അരിപൊടി മുളക്പൊടി മല്ലിപ്പൊടി എന്നിവ എന്നീ പൊടിപ്പിച്ച് വിൽക്കപെടുന്ന മില്ലുകളും ഇവിടെ കൂടുതലായിട്ടുണ്ട് അതുമായിരി ഇവിടെ കാണുന്ന മറ്റു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് ചെറിയ അതായത് തട്ടുകട തട്ടുകട എന്ന് പറയുന്നത് ഇപ്പോ അന്യദേശത്തുന്നുള്ള ധാരളം ആളുകളിവിടെ വന്നു താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ പ്രദേശമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലെ ഭക്ഷണം അതായത് അവരുടേതായ രീതിയില് അവർക്ക് വീട്ടിലെ ഫുഡ് പോലെ തോന്നിപ്പിക്കാനായിട്ട് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം ലഭിക്കുന്ന ധാരളം ഭക്ഷണശാലകളും ഇവിടെ ഈ ചുറ്റുപാടും കണ്ടുവരുന്നുണ്ട് മത്സ്യ വളർത്തലും പൂന്തോട്ടം പൂവ് അതായത് പൂന്തോട്ടം ചെറിയ ചെറിയ പൂച്ചെടി കൃഷി ഇതെല്ലാം മറ്റ് പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ നാട്ടില് അതുമാതിരി തന്നെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനത്തിൽ ഒന്നായ ജാതിക്ക ജാതിക്കായുടെ ഉൽപാദനവും അതിൻ്റെ കയറ്റുമതിയും അതിൻ്റെ അതിനോട് അനുബന്ധിച്ചുള്ള വിൽപ്പനയും ഇവിടെ കണ്ടുവരുന്നുണ്ട്